മൊത്തത്തിൽ ആരോഗ്യത്തിനും ശാരീരിക ക്ഷമതക്കും നീന്തൽ മൂലം ഉണ്ടാകുന്ന പ്രയോജങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒത്തിരി നേരം ഇപ്പോൾ ഒരു നീന്തൽ പഠിച്ച ആൾ ആണെങ്കിലും ഒത്തിരി നേരം ശ്വാസം അടക്കിപ്പിടിച്ച് മുങ്ങി മുങ്ങാങ്കുഴി ഒക്കെ ഇട്ട് നീന്താൻ ഒക്കെ പറ്റും അല്ലാതെ ഒരാളാണെങ്കിൽ ഒത്തിരി നേരം നീന്താൻ ഇപ്പോൾ ഓക്സിജനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഇല്ല നല്ല നീളം ഉള്ളൊരു ഒരു ഒരു ജലാശയമാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുകയാണെങ്കിൽ ഒത്തിരി നേരം ശ്വാസം പിടിച്ച് മുങ്ങാം കുഴിയിട്ട് നിന്ന് ശ്വാസം പിടിച്ച് നീന്തേണ്ട ഒരു ഇതു വരികയാണ് ശ്വാസം പിടിച്ച് നീന്തുന്നത് ഇപ്പോൾ അങ്ങനെ അത് നമ്മുടെ ലങ്സിന് ഒക്കെ ഒരുപാട് കപ്പാസിറ്റി വരുന്നതാണ് അപ്പോൾ ലങ്സിന് ഒക്കെ ഒരുമാതിരി കപ്പാസിറ്റി വരികയും അത് നമുക്ക് നമ്മുടെ ഒരു ഒരു നല്ലൊരു നിയന്ത്രണത്തിന് സഹായമാകുകയും ശ്വസന നിയന്ത്രണത്തിന് സഹായം ആകുകയും ഒക്കെ ചെയ്യും ഇത്ര നീന്തും കുറെ ഒക്കെ നമ്മൾ ശ്വാസം പിടിച്ച് നീന്തുമ്പോൾ നമ്മുടെ ശ്വസന നിയന്ത്രണത്തിന് വളരെ അധികം സഹായം ആകുന്ന ഒരു ഇത് കാണപ്പെടാറുണ്ട് അത് നമ്മൾ ഹെൽത്ത് സംബന്ധമായ ചെക്ക് ചെക്കപ്പുകൾ ഒക്കെ നടത്തു നടത്തുന്ന ഏറ്റവും കൂടുതൽ നീന്തൽ നീന്ത് സ്വിമ്മിങ് അറിയാവുന്ന നീന്തുന്ന ആൾക്കാരിൽ നിന്നാണ് സ്വിമ്മേഴ്സിൻ്റെ അടുക്കൽ നിന്നാണ് ഇങ്ങനെ ഒക്കെ ഒത്തിരി ശ്വസന സഹായമാകുന്ന ഒത്തിരി ഘടകങ്ങൾ കണ്ട് കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഹെൽത്ത് പരമായിട്ടുള്ള വാർത്തകളിലൂടെയൊക്കെ നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ് ഒത്തിരി നേരം ശ്വാസം അടക്കി പിടിച്ച് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുകയും നമ്മുടെ ഇപ്പം ശ്വസനത്തിനുള്ള ഒരുപാട് സഹായങ്ങളാണ് അതാണ് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നമുക്ക് ശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് നമുക്ക് വരികയേയില്ല എത്രനേരം വേണമെങ്കിലും നമുക്ക് എത്ര എന്ന് വെച്ചാൽ നമുക്ക് ഒരുമാതിരി ഒരു കുറച്ച് നേരം നമുക്ക് ശ്വസിച്ച് നിൽക്കാൻ ഉള്ളൊരു അവസ്ഥ വരികയാണ് അപ്പോൾ അത് നമുക്ക് വളരെ അധികം ശ്വസനനിയന്ത്രണത്തിന് സഹായമാകും പിന്നെ ഇപ്പം എന്ത് ആരോഗ്യപ്രശ്നങ്ങളാണ് എപ്പോഴും കൂടുതൽ ഉണ്ടാകുന്നത് പല തരത്തിലുള്ള ആരോഗ്യപ്രശ്നങ്ങളുണ്ട് അപ്പോൾ നീന്തലിൽ നിന്ന് വരുന്ന ആരോഗ്യപ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നീന്തൽ അറിയാത്ത ഒരാൾ ഇപ്പോൾ ശ്വസനം നീന്തുന്നത് പ്രയോജനം ഇപ്പം ശ്വസന നിയന്ത്രണത്തിന് സഹായം നീന്തലാണ് എന്ന് പറഞ്ഞ് നീന്താൻ നീന്തൽ അറിയാത്ത ഒരാൾ നീന്ത് നീന്താൻ പോയാൽ നീന്തൽ അറിയാത്ത പക്ഷം ഇപ്പോൾ അടിയൊഴുക്ക് ഉള്ള ഒരു ഇതാണെങ്കിൽ ആൾക്ക് അപകടം സംഭവിക്കാം അങ്ങനെ നമ്മൾ ഇപ്പോൾ നീന്തൽ പഠിച്ച ഒരു വ്യക്തിയെന്ന നിലയിലായിരിക്കണം നമ്മുടെ നിലപാട് ആരോ ഇത് ശാരീരിക ക്ഷമതക്ക് നീന്തൽ മൂലം വളരെ പ്രയോജനമുണ്ടാകുന്നുണ്ട് അത് നമുക്ക് അത് നമുക്ക് തെളിയിച്ച കാര്യം തന്നെയാണ് അതിനെ പറ്റി നമുക്ക് ഒരു വിട്ടുവീഴ്ച്ചയും പറയാനില്ല വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അത് ഓരോ ഓരോന്നിനും പോസിറ്റീവ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പിന്നെയും പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഇതുകൂടി സംഭവിക്കുകയാണ് അതിലൂടെ നമ്മൾ ഇപ്പോൾ നീന്തുമ്പോൾ നമുക്ക് നീന്തലും അറിയാം അപ്പോൾ അതുപോലെ നമുക്ക് ആരോഗ്യത്തിന് നല്ലൊരു സഹായം കൂടി അപ്പഴ് ലഭിക്കുകയാണ് നല്ലൊരു ശ്വസനം എന്ന് വെച്ചാ നമ്മുടെ ശ്വാസകോശത്തിന് നല്ലൊരു ഉന്മേഷമെന്നുള്ള പെട്ടെന്ന് ശ്വസിക്കാനും ശ്വസനം പെട്ടെന്ന് നടക്കാനും തടസ്സം ഇല്ലാതെ ശ്വസിക്കാനും അതുപോലുള്ള ശ്വസനമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടക്കുന്നതാണ് ഈ നീന്തലിലൂടെ തന്നെ അത് ശാരീരിക ക്ഷമതക്കും വളരെ സഹായപ്രദമാണ് അത് നമ്മൾ നീന്തുന്ന ഒരാളിൽ എപ്പോഴും കണ്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നീന്തൽ അറിയാത്ത ഒരാൾ ഇപ്പോൾ ശ്വസനം നല്ലതാണെന്ന് പറഞ്ഞ് നീന്താൻ പോയാൽ ആൾ ചിലപ്പോൾ അപകടം ആൾക്ക് അപകടം സംഭവിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകും എന്തിലും എടുത്ത് ചാടാതെ കാര്യങ്ങൾ നമ്മൾ ചിന്താപൂർവ്വമോ അല്ലെങ്കിൽ നമ്മുടെ സമയം ഇടപെടൽ മൂലം എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുക അതിലാണ് പ്രാധാന്യം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ശാരീരിക ക്ഷമതക്കും നല്ലതാണ് നമ്മൾ ഈ നീന്തുന്ന അങ്ങനെ നീന്തൽ അറിയാവുന്ന ഒരാൾ സ്വിമ്മിങ് പ്രാക്ടീസ് കാണുമല്ലോ അപ്പോൾ ഡെയിലി കുറച്ച് നീന്തും ഇപ്പോൾ ഒരു ദിവസം ഒരു നൂറ് മീറ്റർ ശ്വാസം പിടിച്ച് മുങ്ങി നീന്തുക നൂറ് മീറ്ററല്ല നമുക്കത് തുടക്കക്കാരൻ എന്ന നിലയിൽ നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തി ഒരു പത്ത് മുപ്പത്ത് അൻപത് മീറ്റർ ഒക്കെ നീന്തുമ്പോൾ തന്നെ അവരുടെ പവർ ഇപ്പോൾ എത്രനേരം നമുക്ക് പിടിച്ച് നീന്താൻ പറ്റും അത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടിയൊഴുക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം ഇപ്പോൾ ഇതുപോലുള്ള പൂളുകളോ അടിയൊഴുക്കില്ലാത്ത ആഴമില്ലാത്ത വലിയ ആഴം ഇല്ലാത്ത നമ്മുടെ അരയറ്റം വെള്ളം ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ആഴമില്ല പായൽ പാറക്കെട്ടുകൾ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വേണം പഠിക്ക നീന്തൽ പഠിക്കാൻ അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുക തന്നെ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ എത്ര നേരം ക ക ക ശ്വാസം അടക്കിപ്പിടിച്ച് നമ്മൾ എത്ര നേരം നീന്തും എന്നുള്ളത് ഒരു വെല്ലുവിളിയോടെ നീന്താൻ പോകാതെ തന്നെ കുറച്ച് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കുറച്ച് ഒരു ടാർഗറ്റ് ഇട്ടിട്ട് പത്ത് അൻപത് മീറ്റർ അത്രയും മുങ്ങി നീന്തുക ഓരോ ദിവസം മൂന്ന് ദിവസം നീന്തുക പിന്നെ അടുത്ത ദിവസം ചെല്ലും തോറും കൂട്ടി കൂട്ടി അങ്ങനെ കൂട്ടി കൂട്ടി നീന്തുക അങ്ങനെ നീന്തി നീന്തി അങ്ങനെ ഒരു എത്ര നമുക്ക് കപ്പാസിറ്റി നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഒരു കപ്പാസിറ്റി നമുക്ക് അറിയാമല്ലോ അത് അങ്ങനെ എത്ര വരെ നീന്താൻ പറ്റുമോ അത്രയും വരെ നീന്താൻ ഇപ്പോൾ ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ മാക്സിമം നീന്തുന്നവരൊക്കെ ഉണ്ട് അഞ്ഞൂറ് അല്ല അഞ്ഞൂറിൽ കൂടുതൽ നീന്തുന്നവരുണ്ട് എന്നാലും ഞാൻ ഒരു മിനിമം മിനിമം അഞ്ഞൂറ് നീന്തുന്നവരൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ നീന്തി പഠിച്ച് പഠിച്ച് പഠിച്ച് പിന്നെ അവർക്ക് ഏതൊരു അടിയൊഴുക്കിൽ ആണെങ്കിൽ പോലും ഒഴുക്കിൽ പെട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെയാണ് സഹായം ആകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു ഇപ്പോൾ ഒരു തടാകത്തിൽ ഇറങ്ങി നീന്തുവാ അപ്പോൾ നമുക്ക് അത്യാവശ്യമൊരു ഇപ്പ ഒരു ഒരു ആറേഴ് എട്ട് മിനിറ്റ് നമുക്ക് ഒരു ശ്വാസം അടക്കി പിടിച്ച് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് ഉണ്ടെന്ന് വെച്ചോളൂ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് പോകാം ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി ഒരു നീന്താൻ ഒരു എന്താ ഇപ്പോൾ ഒരു തടാകത്തിലിറങ്ങി അവിടെ അകപ്പെട്ട് പോയി അടിയൊഴുക്ക് പാറക്കെട്ട് അപ്പം വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും നമ്മൾ പൊങ്ങി വരത്തില്ല എപ്പോഴും അടിയിൽ അടിയൊഴുക്ക് ആയതു കൊണ്ട് അടിയിൽ കൂടി നമ്മൾ ഒഴുകും അങ്ങനെയുള്ള സന്ദർഭം വരുമ്പം ശ്വാസം അടക്കിപ്പിടിച്ച് എത്രനേരം പിടിച്ച് നിൽക്കാമോ അതിനൊക്കെ അത് സഹായകമാകും അത് വളരെ അധികം സഹായമാകുന്ന ഒരു ഘടകമാണ് ഈ ശ്വാസം അടക്കിപ്പിടിച്ച് എത്രനേരം നീന്താമോ അത്ര നേരം നമ്മൾ പഠിക്കണം അത് നമ്മുടെ ആരോഗ്യത്തിനും അത് മൊത്തത്തിൽ ആരോഗ്യത്തിന് ശാരീരിക ക്ഷമതക്ക് അത് നീന്തൽ അത് അങ്ങനെയൊരു നീന്തൽ വളരെ പ്രയോജനമാണ് അത് അത് ശ്വസനത്തിന് നമ്മുടെ ഒരു ശ്വസനത്തിന് അത് വളരെയധികം സഹായം ആകും അത് പിന്നെ നമ്മൾ നീന്തി ഇപ്പോൾ അറിയാത്ത ഒരാൾ ചെയ്യുന്നതിൻ്റെ ഒരു പോരായ്മ മാത്രമേ അതിലുള്ളു അപ്പോൾ കുറച്ച് കുറച്ച് ആദ്യമേ കുറച്ച് നീന്തുക കുറച്ച് ദിവസം അങ്ങനെ നീന്തുക പിന്നെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടി എത്ര മാത്രം നമുക്ക് നീന്താൻ പറ്റുമോ അങ്ങനെ ശ്വാസം അടക്കിപ്പിടിച്ച് നീന്താൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഇപ്പോൾ നീന്താൻ അറിയാത്ത ഒരാൾ നീന്തുമ്പോൾ ഭയങ്കര ഇതുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഇപ്പോൾ നീന്തുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശാരീരിക ശാരീരിക ക്ഷമതക്കും നല്ലൊരു നമുക്ക് ഒരു നല്ല ഉന്മേഷം കിട്ടുന്ന ഒരു ഫീൽ വരും എന്ന് വെച്ചാൽ അതൊക്ക നമുക്ക് വളരെ അധികം ശ്വസനത്തിന് സഹായം ആകുന്ന ഒരു ഘടകമാണ്